നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഹോബി എന്താണ് ആരുടെ കൂടെ യാത്ര ചെയ്യാനാണ് ഇഷ്ടം എവിടെയാണ് ഇഷ്ടപ്പെട്ട സ്ഥലം എനിക്ക് ട്രാവൽ ചെയ്യാനാണ് ഒത്തിരി ഇഷ്ടം യാത്രയാണ് എന്നും എൻ്റെ ഇഷ്ടം എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ എല്ലാടെയും പോകാനാണ് ഞാൻ താത്പര്യപ്പെടുന്നത് എൻ്റെ കുടുംബമാണ് എൻ്റെ എല്ലാം അതിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് എൻ്റെ ഭർത്താവ് ഭർത്താവാണ് എനിക്കെല്ലാം വാങ്ങിത്തരുന്നതും എൻ്റെ സ്വപ്നമായ നഗരങ്ങളിലേക്ക് കൂട്ടി കൊണ്ടുപോകുന്നതും എല്ലാം എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലം എൻ്റെ സ്വന്തം നാടായ കണ്ണൂർ ജില്ല തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ പല സ്ഥലങ്ങളും എനിക്കേറെ പ്രീയപ്പെട്ടതാണ് മുഴപ്പിലങ്ങാടി ബീച്ചും പയ്യാമ്പലം ബീച്ചും ചൂട്ടാട് ബീച്ചും തുടങ്ങിയ പല പല സ്ഥലങ്ങളും ബീച്ചുകളും കുന്നുകളും ചെരിവുകളും എല്ലാം എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പെട്ടതാണ് എൻ്റെ നാടായ കൂത്തുപറമ്പും ഇരിട്ടിയും മട്ടന്നൂരും തലശ്ശേരിയും അവിടങ്ങളിലെ ചെറിയ ചെറിയ സ്ഥലങ്ങളും പാലുകാച്ചി പാറയും ടൂറിസ്റ്റ് സ്ഥലങ്ങളും വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും അതൊക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലെ ചിലതാണ് കണ്ണൂരിലെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഇവിടുത്തെ ഭക്ഷണം കല്ലുമ്മക്കായയും മുട്ട പൊരിച്ചതും മുട്ടയപ്പവും കറികളും പോത്തു കറികളും പോത്തും കാലും വയനാടൻ ചുരവും എല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെത്തന്നെ എനിക്കും ഇഷ്ടമാണ് ഞാനെല്ലാവിടെയും പോകുമ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാനൊത്തിരി തൃപ്തിയുള്ളവളാണ് ഒത്തിരി യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള എനിക്ക് കണ്ണൂർ ജില്ലയിൽ തന്നെ ഇനിയും കാണാനൊരുപാടുണ്ട് കണ്ണൂർ കോട്ടയും തലശ്ശേരി കോട്ടയും നമ്മുടെ പാരമ്പര്യം തുളുമ്പുന്ന പല സ്ഥലങ്ങളും ഇനിയും കാണാൻ ബാക്കിയാണ് ലോകത്തിലെ രണ്ടാമത്തെ ബീച്ചായ ഡൈവിങ് ബീച്ച് അതും നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ചാണ് അവിടെയുള്ള ഓരോ സ്ഥലങ്ങളും തലശ്ശേരിയിലെ ഭക്ഷണവും ബിരിയാണികളും എല്ലാം എനിക്കൊത്തിരി ഇഷ്ടമാണ് എവിടെ പോയാലും ഞാനെൻ്റെ നാടിനോളം സ്നേഹിക്കുന്ന വേറൊന്ന് എനിക്ക് കിട്ടാറില്ല എൻ്റെ നാട്ടിലൂട നടക്കുന്ന ചെറിയ വഴികളും അതൊക്കെയാണ് എൻ്റെ ഇഷ്ടം എൻ്റെ യാത്രകളിൽ എന്നും എൻ്റെ കൂടെയുള്ളത് എൻ്റെ കുടുംബമാണ് കുടുംബമാണ് എൻ്റെ എല്ലാം